മലയാള ഭാഷയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നല്ല മാറ്റം തന്നെ വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ഇംഗ്ലീഷിൻ്റെ ഒരു ഉപയോഗമാണ് കൂടുതലും നമ്മുടെ മലയാളഭാഷയിലേക്ക് വന്നിരിക്കുന്നത് സാധാരണക്കാർ പോലും സംസാരിക്കുമ്പോൾ പല വാക്കുകളും ഇംഗ്ലീഷിലാണ് പറയുന്നത് അതുകൊണ്ടുതന്നെ ആദ്യകാലങ്ങളിൽ മലയാളത്തിൽ പറഞ്ഞിരുന്ന പല വാക്കുകളും ഇന്ന് ഉപയോഗത്തിലില്ല അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വാക്കായിട്ട് മാറുന്നു ബുദ്ധിമുട്ടെന്നുള്ളതുപോലും ഹാർഡെന്നൊക്കെ അങ്ങ് പറയുന്നതുകൊണ്ട് ഇംഗ്ലീഷ് കൂടുതൽ വാക്കുകൾ ഇപ്പോൾ മലയാളത്തിൽ സംസാരിക്കുന്നതായിട്ട് കാണുന്നു അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിലും സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിലും പഠിക്കുന്നതുകൊണ്ട് മലയാളം അധികം സംസാരിക്കുന്നില്ല അല്ലെങ്കിൽത്തന്നെ അതിൻ്റെ ഉച്ചാരണം ശരിയായി വരുന്നില്ല അതുകൊണ്ടുതന്നെ മലയാളത്തിൽ പലപ്പോളും എഴുതാനും വായിക്കാനും പല കുട്ടികൾക്കും ഇപ്പോഴത്തെ കാലത്ത് അറിവില്ല അവർക്ക് എളുപ്പം എഴുതാനും വായിക്കാനും ഇംഗ്ലീഷാണ് എന്ന് തോന്നുന്നു അക്ഷരങ്ങളുടെ എഴുതാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പലപ്പോഴും മലയാളം എഴുതാൻ തന്നെ മടിക്കുന്നു ഇംഗ്ലീഷ് എല്ലാ ലാംഗ്വേജിലും മലയാളഭാഷ തന്നെയല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിലും മലയാളത്തിനേക്കാളും കൂടുതൽ ഇംഗ്ലീഷ് എഴുതാനും പറയാനുമാണ് ജനങ്ങൾക്ക് താല്പര്യം ഹോസ്പിറ്റലുകളിലും അല്ലെങ്കിൽ അതുപോലെത്തന്നെ ഓഫീസുകളിലും ഒക്കെയുള്ള മിക്ക വാക്കുകളും ഇംഗ്ലീഷിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് അത് ഓഫീഷ്യൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ഇംഗ്ലീഷിലെഴുതിയിരിക്കുന്നത് കൊണ്ട് അതിനോടാണ് ജനങ്ങൾക്ക് താല്പര്യം എന്ന് തോന്നുന്നു മലയാളത്തിലെ വളരെ ബുദ്ധിമുട്ടുള്ള എപ്പോഴും ഉപയോഗിക്കാത്ത പല വാക്കുകളും അന്യംനിന്ന് പോകുമെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ഈ രീതിയിൽ മുമ്പോട്ടുപോയാൽ